ഹലോ അ ഇത് കോഴഞ്ചേരിയിലെ ബുക്ക് സ്റ്റാൾ അല്ലെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം അവിടുന്ന് ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു ഐന് അതിനകത്ത് ബുക്കും കുറച്ച് പേനയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആയിരുന്നു അതിനകത്ത് കൊണ്ടുവന്ന ഇത്തവണ കൊണ്ട് വന്ന ബുക്കിനകത്ത് കുറെ പേപ്പറുകളും ഇല്ല ചെളിയൊക്കെ പുരണ്ട് അതിന്റെ എന്താ പറയുക നിലവാരം തീരെ കുറഞ്ഞത് പോലെ കഴിഞ്ഞ തവണ ഇതിന് മുമ്പും ഞങ്ങളൊരു രണ്ടുമൂന്ന് തവണ ഒക്കെ വാങ്ങിച്ചതായിരുന്നു പക്ഷെ ഇത്തവണ അത് വളരെ മോശമായിട്ടാണ് ഒരു മോശായിട്ടുള്ള ഒരിതിലാണ് കിട്ടിയത് ഇത് കമ്പനി ആവിശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവയാണ്

ഞാന് ഞാൻ മിനിങ്ങാന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചത് ഇതിവിടെക്കൊണ്ട് തരികയാണ് ചെയ്തത് ആ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഇത് അത്യാവിശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ വാങ്ങിയത് ആ ആവിശ്യം കഴിഞ്ഞപ്പം ഇത് തിരിച്ച് ത തിരിച്ച് തന്ന് കഴിഞ്ഞാല് പൈസ തിരിച്ച് തരാൻ പറ്റുവോ പൈസ തിരിച്ച് തരാൻ പറ്റത്തില്ല നമുക്ക് വേണേൽ സാധനത്തിന് പകരം സാധനങ്ങൾ തന്നെ തിരിച്ച് തരാം പൈസ തരാൻ പറ്റത്തില്ല പക്ഷെ ഇതൊരുപാട് സാധനങ്ങൾ ഉണ്ട് അതിന് പൈസ ഞാന് ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത് അപ്പം തിരിച്ച് തരാൻ കുറച്ച് കൂടെ എളുപ്പവായിരിക്കുമല്ലോ അക്കൗണ്ട് വഴി തന്നാൽ മതിയാരുന്നു അതിന്റെ ബില്ല് തന്നിട്ടില്ലേ ബില്ലിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഒര് പ്രാവിശ്യം നമ്മള് വിൽക്കുന്ന സാധനങ്ങൾ തിരിച്ച് എടുക്കുകയില്ല എന്ന് നമ്മള് എഴുതിയിട്ടുണ്ട് നമ്മള് പ സാധനങ്ങൾ തിരുച്ചെടു ഒന്നെങ്കിൽ പകരം തരാം അല്ലാതെ ക്യാഷായിട്ട് പൈസ തരാൻ പറ്റത്തില്ല നമുക്ക് ഇതിനകത്ത് ഇപ്പം ഒരു എന്താ പറയുന്നത് ഒത്തിരി ബുക്കും പിന്നെ കുറച്ച് പേനയും അങ്ങനത്തെ സാധനങ്ങൾ ആയിരുന്നു ഈ ബുക്കിനകത്ത് പേപ്പറുകള് കുറെ കീറി ഇരിയ്ക്കുകയും അതേപോലെ അതിനകത്ത് എഴുതാനുള്ളൊരു നിലവാരവില്ല അതിനകത്ത് അത് എന്താ പറയുക പേനയാണെങ്കിൽ കുറെയൊക്കെ തെളിയുന്നില്ല പിന്നേ ചില പേജുകള് അതിനകത്ത് ഒട്ടിയൊട്ടി ആണ് ഇരിക്കുന്നത് പശയും അങ്ങനത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു സ്റ്റേഷനറി പോലത്തെ അത് ഒക്കെ ആണെങ്കിൽ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പം ഉപയോഗവില്ലാത്ത സാധനം ഞങ്ങളിവിടെ വെച്ചുകൊണ്ട് ഇരുന്നിട്ടല്ലെ ഇനി ഇപ്പം ഒരു തവണ പറ്റി ഒന്നുംകൂടെ മേടിക്കുമ്പത്തേനും അതേപോലെ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് എന്താ ചെയ്യുന്നത് പക്ഷെ അതിനും നല്ലത് എനിക്ക് തോന്നുന്നു പൈസ തിരിച്ച് തരുന്നതല്ലെ അതാകുമ്പം കുറച്ചും കൂടെ എളുപ്പവായിരിക്കുമല്ലോ ശരിയപ്പം എന്നാൽ അപ്പം എന്ന് വന്നാലാണ് ഇത് മാറ്റിത്തരാൻ പറ്റുന്നത് ബില്ലു കൊണ്ട് ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ ആ അപ്പം ഒരു ആ എന്നാ മാറ്റന്നാളൊരു പത്ത് മണി ഒക്കെ കഴിയുമ്പത്തേനും വന്നാല് തരാൻ പറ്റുവോ ആ അപ്പം ശരി എന്നാൽ താങ്ക്യൂ ശരി എന്നാൽ ഓക്കെ